എൻ്റെ അഭിപ്രായത്തിൽ കേരളം സന്ദർശിക്കാൻ വരുന്ന വിനോദ സഞ്ചാരികൾ അവർ അവരെ നമ്മുടെ നമ്മുടേതായ രീതി പല പല കലകൾ പഠിപ്പിക്കാനും ആ പല ആഘോഷങ്ങൾ കാണിക്കുവാനും അവർ അതിനൊക്കെ അവർക്ക് ഒരു ഒരു ഉത്സാഹവമാണ് അപ്പോൾ അതിനെല്ലാം നമ്മൾ അവരെ പഠിപ്പിക്കുകയും അത് തിരുവാതിര ഞങ്ങളുടെ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ തിരുവാതിരയും പുലികളിയുമൊക്കെയാണ് ഓണ സമയത്തൊക്കെ വരുകയാണെങ്കിൽ ഈ വരുന്ന സഞ്ചാരികൾക്ക് കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പുലിക്കളികളിലൊക്കെ ഉൾപ്പെടുത്താം അവരെ അരുടേതായ രീതിയിൽ അല്ല നമുക്ക് നമ്മുടേതായ രീതിയിൽ അവരെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം ആ കഥകളിയിലെയും തിരുവാതിരക്കളിയിലെയും പല പല സ്റ്റെപ്പ് തിരുവാതിരയിലെ പല സ്റ്റെപ്പുകൾ ഒക്കെയില്ലേ അതൊക്കെ നമുക്ക് അവരെ കൂടുതലും കൂടുതലും പഠിപ്പിക്കാം കഥകളിയിൽ പല പല മുദ്രകളുണ്ട് അതിൻ്റെയെല്ലാം നമുക്ക് ഓരോന്നുമായി അവരെ പഠിപ്പിച്ച് അവർക്ക് അതൊക്കെ വളരെ ഒരു ഇതായൊരു രീതിയിൽ അവർ ഇതെടുക്കും അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊക്കെ ഇത് പഠിക്കാൻ അപ്പോൾ അവർ ഇതെല്ലാം പഠിച്ച് അവർ അവരേതായ അവരുടെ നാട്ടിൽ അവർ ഇത് കാണിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് അത് ഒരു അഭിമാനമൊക്കെയായി മാറിയപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് തിരുവാതിരയും കഥകളിയിലെ പല പല മുദ്രകളൊക്കെ നമുക്ക് പഠിപ്പിക്കാം പിന്നെ തെയ്യം തെയ്യം ഈ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കലയാണ് തെയ്യവും കഥകളിയും അപ്പോൾ തെയ്യത്തിലെ ഈ ഒരു ആ നമ്മളെ തെയ്യമായിട്ടൊക്കെ അവരെ ഒരുക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാം തെയ്യം തെയ്യത്തിലെ പല ആട്ടങ്ങളായിട്ട് നമുക്ക് ഒരുക്കി അവരെ നമുക്ക് തെയ്യത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ കഥകളി അവരെ പഠിപ്പിച്ച് നമുക്ക് അവരെ ഒരുക്കി ചുമ്മാ ഒന്ന് സ്റ്റേജിലൊക്കെ കയറ്റി അവരെ ഒന്ന് കളിപ്പിക്കുമ്പോൾ അവരുടേതായ സന്തോഷവും നമ്മുടേതായൊരു അഭിമാനമൊക്കെ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മടെ തിരുവാതിരക്കളിയിലെ സ്റ്റെപ്പുകൾ അവർ അപ്പോൾ അതൊക്കെ കാണിക്കാമല്ലോ പിന്നെ അവരെ സാരിയൊക്കെ ഉടുപ്പിച്ച് ആ ഇതുവരെ സെറ്റോ ഒന്നും ഉടുക്കാത്ത അവരെ നമ്മൾ സെറ്റൊക്കെ ഉടുപ്പിച്ച് എല്ലാം നല്ല ഒരു കേരളത്തിലെ സ്ത്രീകളെപ്പോലെ നമ്മൾ അവരെ ആക്കി അവരെ കണ്ണൊക്കെ എഴുതിപ്പിച്ച് കഥ കൈകൾ കൊണ്ടെല്ലാം അവരെ പല പല മുദ്രയും പഠിപ്പിച്ച് അവരെ കളിപ്പിച്ച് അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഈ സന്തോഷം നമുക്കും ഉണ്ടാവും അപ്പോൾ ആ പിന്നെ ഇങ്ങനയൊക്കെ നമ്മുടെ കേരളം സന്ദർശിക്കാൻ വരുന്നവരെ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് ഇതിലെല്ലാം താൽപ്പര്യം കുടുതൽ ആയതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടാകാൻ പാടില്ല